അച്ചടി മാധ്യമങ്ങളായ പത്രം മാസിക തുടങ്ങിയ ആ ഒരു മാധ്യമങ്ങൾ വഴിയും നമുക്ക് നമ്മൾ എഴുത്തിലൂടെയല്ലേ ആ ഒരു മാധ്യമത്തിലൂടെ ആ ഒരു വാർത്തകൾ കൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു വാർത്തകൾ വായിക്കുന്ന സമയത്ത് എത്രത്തോളമാണ് ആ ഒരു ആ അവസ്ഥ അതിൽ വർണ്ണിക്കുന്നതല്ലെങ്കിൽ അതിൽ പറഞ്ഞ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ വാർത്ത ചാനലുകൾ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകൾ വഴിയാണ് ഈ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ വഴിയാണ് നിങ്ങൾ നിങ്ങളൊരു ഇങ്ങനെ ഒരു എന്താണ് വാർത്ത കൊണ്ടു വരുന്നതെങ്കിൽ ആ ഒരു വാർത്ത അതിൻ്റെ കാഴ്ച്ച നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു നമുക്ക് ആ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കുന്നതോടെ അതിൻ്റെ ഇപ്പം നമ്മൾ പത്രവും മാസികവും മാസികയും വായിക്കുന്നതിനേക്കാളും കുറച്ചു കൂടി എന്താണ് പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ കുറച്ച് കൂടി ഒരു ഒരു ഒരു നമുക്ക് ആ ഒരിൻ്റെ ഒരു തീവ്രതയോടെ ആ ഒരു സംഭവം മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വിശ്വാസതയെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ എല്ലാത്തരത്തിലുള്ള മാധ്യമങ്ങളിലും ഒരു തരത്തിൽ ഉള്ള ഒരു ഒരു കാപട്യം ഉണ്ട് പക്ഷേ എല്ലാം നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല ഈ ഈയൊരു സാഹചര്യത്തിലിറങ്ങുന്ന പല ഇതെല്ലാം മനുഷ്യനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട് ഈ ഒരു വാർത്തകൾ കേട്ടിട്ട് ചിലതിൽ പൂർണ്ണമായി സത്യമായിരിക്കും ചിലതിൽ പൂർണ്ണമായ കള്ളമായിരിക്കും ഉൾക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് എഴുത്തായിരുന്നാലും അല്ലെങ്കിൽ അതായത് എഴുത്തിലൂടെ ആയിരുന്നാലും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആയിരുന്നാലും ശ്രവ്യമാധ്യമങ്ങളിൽ കൂടി ആയിരുന്നാലും നമ്മൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത വളരെ സത്യസന്ധമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ പറ്റണമെങ്കിൽ അതിലൊരു സത്യസന്ധത ഉണ്ടങ്കിലെ സാധിക്കുള്ളു അല്ലെങ്കിൽ നമ്മളത് ബോധ്യം നമുക്കത് ബോധ്യപ്പെട്ടാലെ അതിന് പറയാൻ സാധിക്കുവുള്ളു അല്ലാതെ ആണെങ്കിൽ നമ്മളതിൽ പൂർണ്ണമായും ഒരിക്കലും ഒരാൾ പോലും വിശ്വസിക്കില്ല എന്നാണ് എൻറ്റൊരു അഭിപ്രായം